ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു പള്ളിയാണ് സെൻറ് ലൂസിയാസ് ചർച്ച് എന്ന് പറയുന്നത് അത് വളരെ പുരാതനമായൊരു പള്ളിയാണ് മാതാവിൻ്റെ പള്ളിയാണ് അത് തീർത്ഥാടകർക്കും ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക് വന്ന് തീർത്ഥാടനക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് പല പല ഒരുപാട് വർഷങ്ങളായിട്ടൊള്ള സ്ഥലമാണ് തീർത്ഥാട തീർത്ഥാടനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പല ആളുകളും വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് ആചാരങ്ങളും ഒരുപാട് പേർക്ക് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ലഭിക്കുകയും അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ജോലിക്കാർക്ക് ജോലി ലഭിച്ചതായും ഒരുപാട് ആചാരങ്ങളും അതിലൂടെ അവിടെ ഒരുപാട് പ്രെ പ്രാർത്ഥനകളും പള്ളീലച്ചന്മാരുടെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും